കേരളത്തിലെ ആദ്യകാല ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സാമൂഹിക പ്രവർത്തകരായിരുന്നു മുതലാളിത്ത വ്യവസ്ഥയോടുള്ള താത്ത്വികമായ എതിർപ്പിനേക്കാൾ പ്രധാനമായി ഇവരെ ഇതിനു പ്രേരിപ്പിച്ചത് തൊഴിലാളികളുടെ ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങളായിരുന്നു ആധുനികമായ തൊഴിൽ നിയമങ്ങളോ സേവന വേതനം വ്യവസ്ഥകളോ നിലവിലില്ലാതിരുന്ന അക്കാലത്ത് തൊഴിലാളികൾക്ക് അനുഭവിക്കേണ്ടിവന്ന കഷ്ടപ്പാടുക്കൾ വർണാതീതമായിരുന്നു തൊഴിൽ സമയമാണെങ്കിലും രാവിലെ മുതൽ രാവ് അതിരാവിലെയായിരുന്നു അതായത് രാവിലെ മുതൽ തന്നെ ജോലിക്ക് പ്രവേശിക്കണമായിരുന്നു അതുപോലെ തന്നെ രാത്രി ഏറെ വൈകുന്നത് വരെ ജോലീം ചെയ്യണമായിരുന്നു ആലപ്പുഴയിലെ കയർ വ്യവസായ ശാലകളിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ അന്ന് പണിയെടുത്തിരുന്നത് പിന്നീട് കേരളത്തിലെ ആദ്യത്തെ സംഘടിതമായ ട്രേഡ് യൂണിയൻ ആലപ്പുഴയിലെ തിരുവിതാംകൂർ ലേബർ അസോസിയേഷനാണ് ഇത് ട്രേഡ് യൂണിയനിസം കാർഷികമേഖലക്ക് ഒരുപാട് തരത്തിലുള്ള ഭീഷണി ഉയർത്തുന്നു എന്ന് പറഞ്ഞുവരുന്നു പക്ഷേ ട്രേഡ് യൂണിയൻ നിലവിൽ വന്നതോടുകൂടിയാണ് എന്താ തൊഴിൽ സമയം നിജപ്പെടുത്തിയത് രാവിലെ എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം അങ്ങനുള്ള രീതിയിൽ രീതിയിലാണ് ഇപ്പം തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് മറ്റേത് രാപ്പകലില്ലാതെ കഷ്ട്ടപ്പെട്ട് കൊണ്ടിരുന്ന തൊഴിലാളികൾ ഇപ്പോൾ എട്ട് മണിക്കൂർ മാത്രം ജോലി ചെയ്യുന്നതിലേക്ക് ചുരുങ്ങി കൊണ്ടിരിക്കുന്നു ഇത് ട്രേഡ് യൂണിയൻ കാർഷികമേഖലക്കൊരു ചെയ്ത് കൊടുത്തൊരഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ പറയാം പിന്നീട് പിന്നീട് പറയുന്നത്